ഞാൻ പി എഫ് അക്കൗണ്ടുമായിട്ട് സജീവമായിട്ട് തുടർന്നുകൊണ്ട് ഉറപ്പ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പം എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് ഞാൻ പോർട്ടൽ ലോഗിൻ ചെയ്ത് വിവരണം ചോദിച്ചിരുന്നു അപ്പം അതെനിക്ക് ലഭ്യമാവുന്നില്ല നെഗറ്റീവ് ചെയ്തത് ചെയ്ത് നിങ്ങളുടെ പി എഫ് വ്യക്തി അതിൻറെ ആവശ്യമായി നിലനിൽക്കുന്നത് പരിശോധിക്കുക പരിശോധിച്ച് ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പരിശോധിച്ചു അപ്പം അതിനെ പറ്റി എനിക്ക് അതിനെ പറ്റി ഗ്രാഹ്യമായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം ചിലപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാണ് അതിനെ പറ്റി ബ്രീഫ് അതിനെ പറ്റി കാര്യമായിട്ട് പറയാം പറയാം ചെയ്യാം പിന്നെ പരമാവധി പി എഫ് അക്കൗണ്ട് സജീവമായി തുടരാൻ ഞാൻ ഉറപ്പ് വരുത്താൻ ആഗ്രഹിക്കുന്നൊരു ആ ആഗ്രഹമാണ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പോർട്ടലിൽ പോയി അയിൻ്റെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തതിന് അതിൻ്റെ ലിങ്കിൽ പോയി നോക്കിയതിന് ശേഷം അതിനെ പറ്റി ഒരു ബേസ് ആയിട്ട് അറിയാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നെഗോഷ്യേറ്റ് ചെയ്യുകയോ ചെയ്യാനോ അല്ലെങ്കിൽ സാധ്യത ഉള്ളതായത് കൊണ്ട് അതിനെ പറ്റി എനിക്ക് കാര്യമായി അറിവ് കുറവാണ്